ഷെയർ മാർക്കറ്റിനെ പറ്റി നമുക്ക് ആ എനിക്ക് വ്യക്തിപരമായി വ ധാരണയില്ല കേട്ടിട്ടുണ്ട് പിന്നെ പടത്തിലൂടെ ഷെയർ മാർക്കറ്റ് മേടിച്ച് കോടീശ്വരായവരെ പറ്റി കേട്ടിട്ടുണ്ടല്ലാണ്ട് കൃത്യമായൊരു ധാരണ ഇതിനെ പറ്റി എനിക്ക് ഇതുമായിട്ട് ലഭിച്ചിട്ടില്ല അതു കൊണ്ട് തന്നെ എനിക്ക് ഷെയർ മാർക്കറ്റെന്നന്നു പറയുമ്പോഴത്തേക്ക് ഒരു ബിസിനസ്സ് ഒരു ബിസിനസ്സ് രീതിയായിട്ട് കണ്ടിട്ടില്ല അതിൽ അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു കമ്പനിക്ക് വേണ്ടി നമുക്ക് കുറച്ച് ആസ്തി മേടിച്ചിടുക എന്നിട്ട് ഫ്യൂച്ചറിലത് പ്രോഫിറ്റായി മാറുമ്പോൾ നമ്മളത് സെയിൽ ചെയ്ത് നമുക്കതിൻ്റെ ബെനിഫിറ്റ് പ്രോഫിറ്റ് കിട്ടുന്നു അതു കൊ അതെങ്ങനെയായിരിക്കും ഷെയർ മാർക്കറ്റെന്നു പറയുന്നത് ഉദ്ദേശിക്കുക അതു കൊണ്ട് തന്നെ ഷേർ മാർക്കറ്റിൽ ആ എന്തുവാ ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റെന്നു പറയുമ്പോഴത്തേക്ക് അമേരിക്കൻ ഷെയർ മാറ്റുകളെ ആശ്രയിച്ചിരിക്കും ഇത് അതായത് അവിടെ എങ്ങനെയാണ് ഷെയർ മാറ്റുകൾ ഷെയർ മാർക്കറ്റ് സിലുണ്ടാകുന്ന മാറ്റം വ്യതിയാനം അതിനനുസരിച്ച് ഗ്രോത്ത് പ്രോഫിറ്റ് നമുക്ക് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു പ്രോഫിറ്റും ലോസുമാണ് ഈ ഷെയർ മാർക്കറ്റിൽ മെയിൻ ഘടകമായിട്ട് സൂചിപ്പിക്കുന്ന ഈ പ്രോഫിറ്റെന്നു പറയുമ്പോഴത്തേക്ക് ആ ഇതിലൊരു സീസണനുസരിച്ച് ഇൻക്രീസുണ്ടാകും ആ ഓരോ സീസൺ എന്നാൽ ഇപ്പം ഇന്ത്യയുടെ പണത്തിൻ്റെ ആ ഇതു കുറഞ്ഞാൽ അതിനനുസരിച്ച് ഓരോ ഷെയർ മാറ്റുകളിടുകയും ആ ചിലപ്പം ഈ ഷെയറുകൾ കുറേ കൂടുതൽ മേടിക്കുമ്പോഴത്തേക്ക് അത് എന്നാൽ ആ കമ്പനിക്കും പിന്നെ അതിൻ്റകത്തുള്ളവർക്ക് ചിലപ്പോൾ അത് പ്രൊഫിറ്റായി മാറും ആ അതു കൊണ്ട് ഇത് അപകട സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ അപകട സാധ്യതയൊന്നുമുണ്ടാകാൻ ചാൻസില്ല ആ ഇല്ല ഇത് നമുക്ക് എന്നാൽ ഓൺലൈൻ ബിസിനസ്സ് രീതികൾ അതു പോലെ തന്നെ അത് നോക്കണം അല്ലാണ്ട് ഇത് ആ അത് അനാവശ്യമായിട്ടുള്ള വേറെ വേറെ കമ്പനിയിൽ നിന്ന് മേടിക്കാണ്ട് ഇത് സ്ഥിരതയുള്ള കമ്പനി എന്നും ഇതിന് മൂല്യമുള്ള കമ്പനിയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഷെയർ മാർക്കറ്റ് ഇനി നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും